ഞങ്ങളുടെ സംസ്ഥാനത്ത് ആദരിക്കപ്പെടുന്ന പ്രധാന മത നേതാക്കൾ പുരോഹിതന്മാരും സന്യാസിമാരുമാണ് അവരിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ സാധിച്ചു അവരുടെ ജീവിത മാതൃകയും സ്നേഹത്തോടെയുള്ള അരുടെ ഇടപെടലും ദൈവിക കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും അവരുടെ പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാനയോട് ചേർന്നു നിൽക്കുവാനായിട്ട് എന്നെ പഠിപ്പിച്ചതും ഇവരാണ് പുരോഹിതന്മാർ അനുദിന ജീവിതത്തിൽ ഓരോ ദിനവും അർപ്പിക്കുന്ന ബലി അർപ്പണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മയിലേക്ക് വരുവാനും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും എന്നെ ഒത്തിരിയേറെ സഹായിച്ചു പുരോഹിതന്മാർ ഈശോയുടെ പ്രതിപുരുഷന്മാരാണ് അവർ ഈശോയുടെ തിരുസ്വരൂപവും തിരുരക്തവും കരങ്ങളിൽ എടുത്ത് ആശിർവദിച്ച് മറ്റുള്ളവർക്കായി ജനങ്ങൾക്കായി വിശ്വാസികൾക്കായിട്ട് വിളമ്പുമ്പോൾ അത് ഈശോയുടെ തന്നെ തിരുസ്വരൂപവും തിരുരക്തവുമാണ് ഞങ്ങൾക്കായി പകർന്നേകുന്നത് അതുപോലെ അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മയിലേക്ക് വരുവാനും ഈശോയുടെ നന്മകൾ എൻ്റെ ജീവിതത്തിൽ പകർത്തുവാനും ഇടയായ അവസരങ്ങളുവാണ് അനുദിന ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതും വിശുദ്ധ ബലിയാണ് ബലിയർപ്പണത്തിൽ ബലിയർപ്പണത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തെ നന്നായിട്ട് മുൻപോട്ട് നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ബലിയർപ്പണം എൻ്റെ ജീവിതത്തെ എല്ലാ രീതിയിലും സ്വാധീനിക്കുന്നുണ്ട് അനുദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലുമെല്ലാം ഈശോയോട് ചേർന്നു നിൽക്കുവാൻ എന്നെ സഹായിക്കുന്നത് ബലിയർപ്പണമാണ് മറ്റുള്ളവരിൽ ഈശോയെ കാണുവാൻ മറ്റുള്ളവരുടെ വിഷമതകളിൽ അവരോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പ്രചോദിപ്പിക്കുന്നതും ഈ ബലിയർപ്പണമാണ് പുരോഹിതന്മാർ എല്ലാ രീതിയിലും നന്മയുടെ നിറകുടമായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ വർത്തിക്കുന്നു സന്യാസിമാരും എന്നെ ഒരുപാട് സ്വാധീനിക്കുന്ന ഘടകമാണ് സന്യാസിമാരുടെ ജീവിതം ഒരുപാട് നന്മയും സ്നേഹവും നിറഞ്ഞ വ്യക്തിത്വങ്ങളാണ് അവർ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് തരാറുണ്ട് ഈശോയോട് ചേർന്നു നിൽക്കുവാൻ സന്യാസിമാരും ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈശോയുടെ തന്നെ മണവാട്ടികളായിട്ട് അറിയപ്പെടുന്ന സന്യാസിമാർ അവരുടെ ജീവിതം മുഴുവനും സമർപ്പിച്ചത് സമർപ്പിച്ചിരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അവരുടെ ജീവിതം എനിക്കും എന്നെന്നും ഒരു മാതൃകയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈശോയോട് ചേർന്നു ഈശോയുടേതായി ജീവിക്കുന്ന അവർ അവർക്കും ഒരു ലക്ഷ്യമേയുള്ളൂ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക ഈശോയ്ക്ക് വേണ്ടി മരിക്കുക എന്നത് മാത്രം സന്യാസികൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന പങ്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയും വഴിയോരങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയുമെല്ലാം ഒരുപാട് ത്യാഗപൂർവ്വമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് പഠന മേഖലകളിലാണെങ്കിലും അവർ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് അവരുടെ ജീവിതം എല്ലാ രീതിയിലും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ സഹനത്തിൻ്റെ വഴിയും അവരുടെ ജീവിതത്തിലുണ്ട് അറിഞ്ഞും അറിയാതെയും കിട്ടുന്ന ത്യാഗങ്ങളും വളരെ വലുതാണ് എനിക്ക് അത് അതിനെയെല്ലാം ഈശോടെ സ്നേഹത്തെ പ്രതിത്യാഗത്തോടെ സ്വീകരിക്കാനും ക്ഷമിക്കാനും കണ്ടില്ലെന്ന് വയ്ക്കാനും സ്നേഹത്തിലായി ഇരിക്കുവാനും അവരെ സ്വാധീനിക്കുന്നതും ഇതൊക്കെയാണ് അവർ ഞങ്ങളുടെ സന്യാസിമാർ എന്നെന്നും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും ഈശോയുടേതായി തീരുകയും ചെയ്യാൻ പരിശ്രമിക്കുന്നതാണ് ഇവരും വിശുദ്ധ ബലിയോട് ചേർന്ന് യാമ പ്രാർഥനകളോട് ചേർന്ന് ഓരോ ദിനവും ഓരോ യാമത്തിലും ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച് അനുദിന ജീവിത വ്യാപാരങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ആയിരിക്കുവാൻ തക്ക വിധം സ്വന്തം സമൂഹത്തിലും അതുപോലെ തന്നെ അവറായിരിക്കുന്ന ഇടങ്ങളിലും ഇടവകകളിലും ഇടവകയിലെ ഓരോ കുടുംബങ്ങളിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടേയും അതുപോലെ അവരുടെ ഹൗസ് വിസിറ്റിംഗ് നടത്തിയും അതുപോലെ വീട് സന്ദർശനവും ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി കണ്ടു കൗൺസിലിംഗ് നടത്തിയുമെല്ലാം ഈ സന്യാസിമാർ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിലെ സന്യാസിമാർ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു മുന്നോട്ട് പോകുന്നവരാണ് ഇവർ ഞങ്ങൾക്കെന്നും മാതൃകയും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരുമാണ് ആനന്ദത്തിൻ്റെ വ്യക്തികളായിട്ട് ഇവർ നില കൊള്ളുന്നു